ആറ് ഒന്ന് രണ്ടായിരത്തി ആറ് ഇരുപത്തേട്ട് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനാല് രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്